ഹരോ മുൻസിപ്പാലിറ്റി അല്ലേ ഞാൻ എനിക്ക് ഞങ്ങളുടെ അടുത്തുകൂടി കുറേ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഹരിത കർമ്മസേനയെ വിട്ട് മാലിന്യങ്ങൾ ഇവിടെനിന്ന് മാറ്റി സംസ്കരിക്കാനുള്ള ഒരു കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറയുകയാണ് അത് ഇവിടെ കെട്ടിക്കിടന്ന് എന്തെങ്കിലും ഇവിടെ ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും നമ്മൾ ഇത് ഇങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഇവിടെ മൊത്തം മാലന്യം കെട്ടിക്കിടക്കുന്നുണ്ട് അതു നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഈ ഹരിത കർമ്മസേനയെ വിടുകയാണെങ്കിൽ അവരത് കൊണ്ടുപോയി മാലിന്യനിർമാർജ്ജനം ചെയ്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് മാറ്റി നല്ല രീതിയിൽ ചെയ്യും എന്ന് ചെയ്യേണ്ടത് ചെയ്ത് അവർ കൊണ്ടുപോയി നല്ല അത് നിർമാർജ്ജനം ചെയ്യുമല്ലോ അതുകൊണ്ട് അവരെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു വിടണം എൻ്റെ അതുപോലെ പുതിയ അപ്ഡേഷനുകൾ ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആഭ്യർത്ഥിക്കുകയാണ് ഞാൻ അതുകൊണ്ട് എത്രയും പെട്ടന്ന് ഹരിത കർമ്മസേനയെ വിടണം എന്ന് അഭ്യർത്ഥിക്കുന്നു